പരമ്പരാഗത നൃത്തം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ എനിക്ക് പറയാൻ അറിയുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മാർഗ്ഗംകളിയാണ് മാർഗ്ഗംകളി മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു പരമ്പരാഗത നൃത്തമാണ് നമ്മുടെ ഒരു എന്ത് സെലിബ്രേഷനിലും കല്ല്യാണം ആയിക്കോട്ടെ എന്ത് പരിപാടിയിലും ഒരു മുഖ്യ പങ്ക് ആ നൃത്തം വഹിക്കുന്നുണ്ട് അത് അതിൽ നമ്മുടെ അതായത് നമ്മൾ മാർത്തോമാ അതായത് ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് പേരിൽ ഒരാളായ തോമസ് ഭാരതത്തിൽ വന്നത് അതുമായിട്ട് അനുസ്മരിച്ചിട്ടുള്ള ഒരു പാട്ട് പാടി അതിനനുസരിച്ചു ചുവടു വയ്ക്കുന്നതാണ് അപ്പം അതാണ് അതിനെക്കുറിച്ച് ആണ് എനിക്ക് അറിയുള്ളു അത് അത്രയൊക്കെയേ പറയാനും ഉള്ളു